ഞാൻ ഓൺലൈനീന്ന് ഒരു കർട്ടൻ വാങ്ങി രണ്ടാമത്തെ തവണയാണ് വാങ്ങുന്നത് പക്ഷേ കർട്ടൻ അത്ര നല്ലതല്ലായിരുന്നു മോശപ്പെട്ടതായിരുന്നു പിന്നെ അത് കഴുകിയൊക്കെ നോക്കിയപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കർട്ടനായിരുന്നു വളരെ മോശമായിരുന്നു